ഞാൻ വളരെ ചെറിതിണ്ടായിരുന്ന പ്രായത്തില് തന്നെ കേരളത്തിനടുത്തുള്ള സംസ്ഥാനായ കർണാടകയിലേക്ക് യാത്ര പോകാറണ്ടായിരുന്നു അപ്പം ആ യാത്രയില് നമ്മള് സന്ദർശിക്കാറുണ്ടായിരുന്നത് കർണാടകയിലെ ചില അമ്പലങ്ങളും ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ പ്രായത്തില് ഞാൻ വളരെ ചെറുതായിരുന്നത് കൊണ്ട് എനിക്ക് ആശയവിനിമയം നടത്തണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒന്നിച്ചൊള്ളവരെന്നെ അവരോട് മിണ്ടും വഴി ചോദിക്കും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് അവര് ആരോടെങ്കിലുവൊക്കെ ചോദിച്ച് വഴിയൊക്കെ പറഞ്ഞ് കൊടുക്കും പക്ഷേ ഞാൻ വലുതായതിന് ശേഷം എനിക്ക് ആകെ അറിയുന്ന ഭാഷാന്ന് പറയുന്നത് മലയാളമാണ് എഴുതാനും വായിക്കാനും കർണാടകയിൽ ഞങ്ങള് ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം അവിടുത്തെ പ്രാദേശിക ഭാഷാന്ന് പറയുന്നത് കന്നടയാണ് എനിക്ക് കന്നഡ കേട്ടാല് പോലും മനസ്സിലാകാത്ത ഭാഷയാണ് അപ്പോൾ ആ പ്രായത്തിൽ ഞാൻ വിചാരിച്ചു ഞാൻ വളരെ ചെറുതായത് കൊണ്ട് ആ പ്രായത്തില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അതുപോലൊള്ള ഉപകരണങ്ങളൊന്നും ഉണ്ട് നിലവിലുണ്ട് എന്നുള്ള കാര്യം പോലും എനക്ക് അറിയില്ല പക്ഷെ ഞാൻ വലുതായതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഇതേ പോലുള്ള ഭാഷകള് അറിയാത്ത ഭാഷകള് മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം ഗൂഗിൾ യൂസ് ചെയ്യാം ഗൂഗിളില് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വളരെ വൈകീട്ടാണെങ്കിലും ഞാൻ ആ കാര്യം മനസ്സിലാക്കി അതിനു ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഉപയോഗം അത് നിലവിലുണ്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ കുറെ പ്രാവശ്യം ഞാൻ കർണാടകയിലേക്ക് യാത്ര പോയി അതെ മുമ്പ് സന്ദർശിച്ച അതേ അമ്പലങ്ങളിലേക്കൊക്കെ യാത്ര പോയി അപ്പോൾ അവിടുത്തേക്കുള്ള പ്രസാദം എങ്ങനെയാണ് നമ്മള് പറയുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മള് ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കവിടുത്തെ വഴി അറിയില്ല അവിടുത്തെ ആൾക്കാരെ പറ്റി അറിയില്ല അവിടെ നമുക്കെവിടെങ്കിലും താമസിക്കണങ്കില് താമസിക്കേണ്ട ഹോട്ടൽ മുറികളെപ്പറ്റി അറിയില്ല അവടെ നമ്മള് എത്ര പൈസ ആയി ഹോട്ടലില് ഇറങ്ങുമ്പോൾ എത്ര പൈസ ആയി ഇപ്പോൾ കർണാടകയില് എവിടെങ്കിലും ചോറ് കഴിച്ചിട്ട് എത്ര പൈസ ആയി എത്ര പൈസ ആണ് കൊടുക്കേണ്ടത് എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പം നമ്മളാകെ ഭയങ്കര അന്ധാളിച്ച് നമ്മളവിടെ നിക്കും അപ്പോൾ സഹായകമാവുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് അപ്പം ഞാന് എനിക്ക് എന്താണോ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ചോറ് കഴിച്ചതിനു ശേഷം അവിടെ ഹോട്ടലിലെ ആളോട് കന്നഡ പറയാൻ എനിക്ക് അറിയില്ല അപ്പ ഞാൻ ഫോണെടുത്തിട്ട് ഗൂഗിളില് എനിക്ക് എന്താണോ പറയേണ്ടത് അത് എൻ്റെ ഭാഷയില് ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്തതിന് ശേഷം അതില് ട്രാൻസ്ലേറ്റു ട്രാൻസ്ലേറ്റ് ടു കന്നഡ കൊടുക്കും അപ്പം അതില് കന്നഡ ഭാഷയില് എങ്ങനെയാണോ പറയണ്ടത് അതേപോലെ ഗൂഗിൾ പറഞ്ഞ് തരും അത് സൗണ്ട് വച്ചിട്ട് അതിന് സ്പീക്കറ് വച്ചിട്ടാണ് അവരോട് വിനിമയം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയണ്ട ആവശ്യം ഇല്ല അവർക്ക് കാര്യം മനസ്സിലാകും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് അതല്ലങ്കില് വേറെ ഏതെങ്കിലും ഉപകരണം യൂസ് ചെയ്യാന്ന് വെച്ചാല് നമ്മളുടെ കയ്യിലങ്ങനെ അവൈലബിൾ അല്ല അതുകൂടാതെ നമ്മള് ചെയ്യുന്ന മറ്റൊരു കാര്യം അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ഇപ്പോൾ കുറച്ച് മലയാളികളുണ്ടാകും നമ്മള് എവിടെപ്പോയാലും കാണുന്നവരാണ് ഈ മലയാളികളെ ഇപ്പം നമ്മള് ഏതെങ്കില് നമുക്ക് പരിചയത്തിലോ അല്ലങ്കില് നമ്മുടെ കുടുംബ വീട്ടിലോ ഉള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയക്കാരോ ബന്ധുക്കളൊക്കെ നമ്മള് പോകുന്ന സ്ഥലത്ത് ഉണ്ടെങ്കില് അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് അവരെ കൂടെ കൂട്ടും അവരെ കൂടെ കൂട്ടിയാല് കാര്യം എളുപ്പമാണ് കാരണം അപ്പം നമുക്ക് ഗൂഗിൾ ട്രാന്സ്ലേറ്ററിൻ്റെ ആവശ്യമില്ല വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല ഇപ്പോൾ നമ്മള് ഭാഷ അറിയാത്തവരോട് സംസാരിക്കുമ്പോൾ നമ്മള് കന്നഡ സംസാരിക്കുന്ന ഒരാളോട് മലയാളം സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല നമുക്കും കന്നഡ മനസ്സിലാവുകയും ഇല്ല അപ്പം നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് വച്ചാലൊരു അവസ്ഥയായിരിക്കും നമുക്കാകെ പേടിയായിരിക്കും കാരണം എന്തു പറ്റിയാൽ നമുക്ക് ഒരു സഹായം ചോദിക്കാൻ പോലും ഭാഷയറിയില്ലല്ലോ വെള്ളം കുടിക്കണോന്ന് വച്ചാൽ അതുപോലും ചോദിക്കാൻ പറ്റില്ലന്ന് പറഞ്ഞിട്ട് നമുക്ക് സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതല് ഞാൻ ആശ്രയിക്കാറുള്ളത് മലയാളം അറിയുന്ന ഭാഷ അറിയുന്ന ഒരു മലയാളിയെ തന്നെയാണ് എവിടെ പോയാലും അങ്ങനെ ഒരാള് ഉണ്ടാവാറുണ്ട് പരിചയത്തിലായാലും അല്ലാതെ ആയാലും കാരണം കുറെ ഭാഷ അറിയുന്ന കുറെ ആൾക്കാരുണ്ടിപ്പം മലയാളം മാത്രമല്ല കന്നഡയും മറ്റ് അനവധി ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും കുറെ ഭാഷകൾ ഒന്നിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സമീപിച്ചാൽ അവരോട് കാര്യം പറഞ്ഞ് അവരെ കൂടെ കൂട്ടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹോട്ടലുടമയെ സന്ദർശിക്കും അവരുടെ അടുത്ത് പോകും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പൈസ കൊടുക്കുന്ന സമയത്ത് ആദ്യ ഇത് ടൈപ്പ് ചെയ്യണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് സാധാരണ സംസാരിക്കുന്നത് ഒരാളുടെ മുഖത്ത് നോക്കി നമ്മള് അപ്പം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം പറയും പക്ഷേ ഇത് ആദ്യം നമ്മള് ഫോൺ എടുക്കുന്നു ഫോണില് ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞവരെ കേൾപ്പിക്കുന്നു അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണിത് അതല്ലങ്കിൽ നമ്മൾക്ക് ഭാഷയറിയില്ല പക്ഷേ അതേ സമയത്ത് വേറെ ആളെ തപ്പി കണ്ട് പിടിക്കണം ഒരു ബന്ധുവിനെ ആയാലും അടുത്തുള്ള ആൾക്കാരെ ആയാലും ആരെ ആയാലും തപ്പി കണ്ട് പിടിക്കണം അപ്പ അത് ചെറിയ കാര്യം അല്ല കാരണം അവിടെ ഉള്ള ഉണ്ടാകുന്ന ആൾക്കാര് ഒരു ഗൈഡ് പോലെ ഉണ്ടാകുന്ന ആൾക്കാര് നമുക്ക് അറിയുന്നവരായിരിക്കില്ല അപ്പം നമ്മള് അവരെ പരിചയപ്പെട്ട് അവര് നല്ല ആളാണൊന്നൊക്കെ അറിയേണ്ടത് ഭയങ്കര ആവശ്യമാണ് അപ്പോൾ ആളുകളുമായിട്ട് നല്ലോണം സംവദിക്കും അവര് എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് അവര് നമ്മളെ സഹായിക്കാൻ റെഡി ആണോ കാരണം അവര്ക്കും ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിലാള് ഒരാളായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കില് അവര് എന്തെങ്കിലും സ്ഥാപനം നടത്തുന്ന ആൾക്കാരോ ബിസിനസ്സ് ചെയ്യുന്നവരോ അല്ലങ്കില് ദിവസവും ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും അപ്പം നമ്മളിവിടെ വിനോദത്തിന് വേണ്ടിയിട്ട് യാത്ര നടത്തുന്ന സമയത്തും അല്ലാതെ ആവശ്യത്തിന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവർക്കും അവരുടേതായ തിരക്കുകളുണ്ടാകും അപ്പം ചില സമയത്ത് അവര് നമ്മളുടെ കൂടെ ഉണ്ട് എന്നിരുന്നാലും കൂടി ചിലപ്പം അവര് നമ്മളെ കൂടെ ഉണ്ട് പക്ഷേ പെട്ടെന്നവർക്ക് ഒരാവശ്യം വരുന്നു പെട്ടന്ന് ജോലി സ്ഥലത്ത് പോകും അല്ലങ്കിലവരുടെ അവര് എന്തെങ്കിലും സ്വന്തായിട്ടുള്ള കാര്യത്തിനോ വേണ്ടിയിട്ടവര് പോകും ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ആവശ്യമോ ജോലിക്കോ എന്തെങ്കിലും ആയിട്ടവര് പോകും പോകുന്ന സമയത്ത് നമ്മളിവിടെ ഒറ്റക്കാണ് നമുക്കാണെങ്കില് ഭാഷ അറിയില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണന്നറിയാതൊരു പേടിയാണ് നമുക്ക് എന്ത് ചെയ്യണന്നറിയില്ല ഇപ്പത് വളരെ വലിയൊരു വാഗ്വാദം തന്നെയാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് സമൂഹത്തെ എങ്ങനെ നമ്മള് അഭിമുഖീകരിക്കുന്നുള്ളൊരു കാര്യം വളരെ സംശയകരമാണ് ആ കാര്യത്തില് നമുക്കെന്ത് ചെയ്യണം ഒന്നും അറിയില്ല ആ സന്ദർഭം വളരെ ദുർഘടമാണ്